ഇവിടെ ഗവണ്മെൻറ് കോളേജ് ഉണ്ട് ഇവിടെ ഇവിടെ എന്റെ കസിൻ ആണ് അവിടെ പഠിക്കുന്നത് ബികോം ഫസ്റ്റ് ഇയർ ആണെന്നു തോന്നുന്നു അല്ല സെക്കൻറ് ഇയർ ആണ് അവർ അവൾ പഠിക്കുന്നത് നല്ല കോളേജ് ആണ് ഗവൺമെന്റിന്റേതായതുകൊണ്ട് തന്നെ നല്ല നല്ല അടിപൊളി കോളേജ് ആണ് പ്രശസ്തമാണ് കുറച്ച് ഗവണ്മെൻറ് കോളേജ് എന്നുപറഞ്ഞാൽ കുറച്ച് പ്രശസ്തമാണ് ഇവിടെ ഉള്ളത് പിന്നെ നല്ല പഠിത്തമൊക്കെയാണ് അവിടെ നല്ല പഠനരീതികളാണ് നല്ല സാറുമാർ ടീച്ചേഴ്സ് ഒക്കെ ആണ് അതുകൊണ്ട് തന്നെ പഠിക്കാനും വളരെ ഇന്ററസ്റ്റ് ആണ് അത്യാവശ്യത്തിന് ഫ്രീഡം അങ്ങനെയൊക്കെ നൽകുന്നുണ്ട് നല്ല മാർക്കുണ്ടെങ്കിൽ അങ്ങനത്തെ കോളേജിലൊക്കെ ചേരാം നല്ല ഒരു നല്ലൊരു കോളേജ് ആണത് എല്ലാവരും ആണ് എല്ലാവരും തന്നെ അവിടെ ആണ് പഠിക്കാൻ പോക്കുന്നതിപ്പം ക്യാന്റീനൊക്കെ അവിടെ ഉള്ള ഒരു കോളേജ് ആണ് ആഘോഷങ്ങൾ ഉണ്ട് ഇടക്കിടെ ഉള്ള ആഘോഷങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ